ഇരുപത്തൊൻപത് സ്റ്റേറ്റുകൾ ഉള്ള ഒരു ഇതാണ് ഇന്ത്യ രാജ്യ ഇരുപത്തൊൻപത് സ്റ്റേറ്റുകൾ ഉള്ള പിന്നെ ഒരു ജി ഒരു സമസ്ത ഒരു കൺട്രി ഉം ഒരു രാജ്യം ആണ് ഇന്ത്യ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊൻപതിലും എല്ലാം ഒരേ പോലത്തെ ഒരേ പോലത്തെ കാലാവസ്ഥയുള്ള സംസ്ഥാനങ്ങൾ അല്ല എല്ലാം എല്ലാ രീതിയിലും വ്യത്യസ്തമാണ് അതിപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആയിക്കോട്ടെ വസ്ത്ര രീതിയുടെ കാര്യത്തിൽ ആയിക്കോട്ടെ ഭാഷയുടെ കാര്യത്തിൽ ആയിക്കോട്ടെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം പേർ നൂറിൽ എഴുപത്തി അഞ്ച് പെർസെന്റേജ് ആളുകളും ഹിന്ദിയാണ് സംസാരിക്കുന്നത് അതേപോലെതന്നെ എ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർക്കും ഹിന്ദി അറിയാം പിന്നെ ഗുജറാത്തി ബംഗാളി അങ്ങനെ കുറച്ച് പിന്നെ വാക്കിൽ കുറച്ച് അവരുടെ ഭാഷയിൽ കുറച്ച് വേരിയേഷൻ ഉണ്ട് പിന്നെ നമ്മൾ മലയാളം പറയുന്നത് കേരളത്തിൽ മാത്രമാണ് തമിഴ്നാട്ടിൽ തമിഴ് കർണാടക കർണാടക പിന്നെ ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ബാക്കിയെല്ലാ സ്ഥലത്തും ഓൾമോസ്റ്റ് ഹിന്ദിയാണ് സംസാരിക്കുന്നത് പിന്നെ ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ജമ്മു കാശ്മീർ മദ്ധ്യപ്രദേശ് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഹിമാലയ ആ ഭാഗത്തോട്ട് പോകുമ്പോൾ കൂടുതൽ തണുപ്പാണ് മഞ്ഞ് കൂടുതലുള്ള ഭാഗങ്ങളാണ് അവിടെ ഭയങ്കര ശ ഒരു തണുപ്പ് കാലാവസ്ഥയാണ് പിന്നെ ഗുജറാത്ത് ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുള്ള ഒരു കാലാവസ്ഥയാണ് മറ്റേ ഡൽഹി ആ ഭാഗത്തൊക്കെ വരുമ്പോൾ നല്ല വെയിലും മഴയും എല്ലാംകൂടി മിക്സഡ് കാലാവസ്ഥയാണ് ബാംഗ്ലൂർ ഒക്കെ ആകുമ്പം ചൂടാണ് മഴയൊക്കെ കുറവാണ് മുംബൈ ബാംഗ്ലൂർ ഒക്കെ മഴയൊക്കെ കുറവാണ് നമ്മൾ കേരളത്തിലോട്ട് വരുമ്പോൾ കേരളം കർണാടക പിന്നെ തമിഴ്നാട് ഏരിയയിലേക്ക് വരുമ്പോൾ മഴയും മഴ കൂടുതലാണ് തണുപ്പ് നമുക്ക് പിന്നെ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ തണുപ്പുണ്ട് കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ തണുപ്പുണ്ട് എല്ലായിടത്തും ഇല്ല ചിലയിടങ്ങളിലെ ഇടുക്കി വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ തണുപ്പ് നേരിയ രീതിയിലുണ്ട് ബാക്കി എല്ലായിടത്തും ചൂടാണ് നമുക്കൊക്കെ നല്ല ചൂടാണ് അപ്പം പിന്നെ പല രീതിയിൽ വ്യത്യസ്ത പെട്ടിരിക്കുകയാണ് ആ പ്രദേശത്തെ കാലാവസ്ഥ അവിടുത്തെ ഭൂഘടനയും തമ്മിലൊക്കെ ഒത്തിരി വ്യത്യാസത്തിലുണ്ട് മഞ്ഞും മലയും ഒക്കെയുള്ള സ്ഥലമാണെങ്കിൽ കൂടുതൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതൽ ചൂടാണ് അനുഭവപ്പെടുന്നത്